ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ വിനോദ രൂപം എനിക്ക് തോന്നിയിട്ടുള്ളത് ഗെയിംസാണ് ഗെയിംസിനെ കൂടുതലയിട്ടാൾക്കാർ ഇന്ത്യയിലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മറ്റേ നമ്മുടെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഗെയിംസിലോട്ട് ഇറങ്ങി തിരിക്കുന്ന ആൾക്കാരിലും കുറവാണെന്നുണ്ടെങ്കിലും പക്ഷേ ഗെയിംസിന് കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടുതലായിട്ടും ഉള്ളത് ഇന്ത്യയിലുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ക്രിക്കറ്റിനെയാണെങ്കിലും ഫുട് ബോളിനെയൊക്കെ ആണേ ഭയങ്കരമായിട്ട് ആരാധനയോട് കൂടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ നോക്കി കാണുന്നത് ഭയങ്കര ഒരു ഹരമാണ് പക്ഷേ നമ്മുടെ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് അങ്ങനെയുള്ള ഗെയിംസിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കോംപീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഇതില്ല ബലമില്ല അതിനുള്ള അംഗ ബലം നമുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സ്പോർട്സിലേക്കും ഗെയിംസിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് പക്ഷേ കൂടുതലായിട്ട് ജനപ്രിയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജനങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാകുവം തന്നെയാണ് ഗെയിംസ് ഗെയിംസിനെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് അവർ നെഞ്ചിലേറ്റിയാണ് ഓരോ ഗെയിംസിനേയും കാണുന്നത് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഗെയിംസ് തന്നെയാണ് കൂടുതലായിട്ട് ഉള്ളതെന്നാണ് കാണാൻ ഇഷ്ടമാളുകൾ ഇന്ത്യയിലെ ആളുകൾ കണാനൊക്കെ ഇഷ്ടപ്പെടുന്നത് ഗെയിംസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഏഷ്യൻ ഗെയിംസും നമ്മുടെ കോമൺ വെൽത്ത് ഗെയിംസൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ആരാധനയോട് കൂടിയാണ് ആൾക്കാർ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും മെഡൽ അടിച്ചിട്ടുണ്ടെങ്കിലത് ഭയങ്കര ഇതായിട്ടാണ് സ്പോർട്സിനെയും ഗെയിംസിനെയൊക്കെ ആൾക്കാർ കാണുന്നത്